ഓക്കെ ആൾ കളി കാണുന്നച്ച നമ്മൾക്ക് മെയ്നായിട്ട് ആണുങ്ങളുടെ കേസായാലും ആരുടെ കേസായാലും കളികളെന്നുള്ള ഒരു പ്രേത്യേക ഒരു സ്പോർട്സ് ആക്റ്റിവിറ്റി ഫുട്ബോളായാലും ക്രിക്കറ്റായാലും നമ്മൾ മെന്റലി വെറുതെ ഈ വീട്ടിലിരുന്ന് ഫോൺ നോക്കുന്ന സമയത്തൊരു ആണെങ്കിലും നമ്മൾ മെന്റലി പ്രിപ്പേർ ആകും നമ്മൾ ഒരു നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഫുട്ബോളെന്ന് പറയുന്ന ഗെയ്മായാലും ക്രിക്കറ്റെന്ന് പറയുന്ന ഗെയ്മയാലും നമ്മൾ മൈൻഡ് ഗെയിമാണ് നമ്മൾ അതിന്റെതായ ഫോക്കസും അതുമല്ല നമ്മളെ ഈ ഇതിന്ന് ഇതായി ഇരുന്നു നമ്മൾ രാത്രി ക്രിക്കറ്റ് കാണുന്നു ഈ സഞ്ചുറെ കറങ്ങി അടിക്കുന്നു ഇതൊക്കെ കാണുന്ന നമക്ക് ഒരു ഇൻസ്പിരേഷൻ ആയിട്ട് ചെന്നിരുന്ന് കളിക്കാൻ തോന്നും അത് ചെയ്യുന്നോടം നമ്മൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ് എന്നാണ് നമ്മൾ ഈ ശരീരം നമ്മൾ നല്ല ഇതാവുകയും ഫിറ്റ്നസ് വരികയും നല്ലൊരു ബോഡി തന്നെ കാണും എപ്പോഴും നമ്മുടെ ശരീരം നല്ല ഒരു ഇതായിരിക്കും നമ്മൾ റിഫ്രെഷ്മൈൻ്റ് ആയിരിക്കും നല്ല ആക്റ്റീവായിരിക്കും നമ്മുടെ ശരീരത്ത് വലിയ അല്ല വീട്ടീരുന്നു കഴിഞ്ഞ് നമ്മുടെ ശരീരം വളരെ ഇതായി ഫാറ്റായി അങ്ങനെ ഇത് പക്ഷെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഒരുപാടൂ പേര് നമ്മൾ മെന്റലി ഹെൽത്തി എന്ന് പ്രിപ്പേറാക്കും പിന്നെ നമ്മൾക്ക് ഇതിനോടുള്ള ക്രേയ്സ് ഉണ്ടെങ്കിൽ അതിനോടുള്ര ഒരു ക്രേയ്സുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ സമയം പോകുന്നതറിയില്ല മെയിൻ കേസ് സമയം പോണില്ല എത്ര നേരം വേണമെങ്കിലും നമ്മള് കളിച്ച് കൊണ്ടിരിക്കും പിന്നെ ഇതാണ് പിന്നെ നമ്മൾ നേരോകാലം നമ്മൾ കളിച്ച് കളിച്ചു വരാൻ നേരത്ത് നമ്മൾ നല്ല രീതിക്കാവും പിന്നെ നമുക്ക് എപ്പോഴും കളികൾ എ ഴും കാണാൻ തോന്നും എപ്പോഴും നമ്മൾ ഇപ്പഴുവീ ക്രിക്കറ്റ് വാച്ച് ചെയ്യും അല്ലങ്കി ഈ ഫുട്ബോൾ വാ എന്തായാലും നമ്മള് എന്നിരുന്നൊ സമയം പോണതറിയില്ല നമ്മള് എത്ര ജോലിക്ക് പോയിട്ട് വന്നാലും നമ്മൾ ഇരുന്ന് കളിക്കും അത് സമയം പോണതറിയില്ല ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തും ഹെൽത്തി ആണ് ഓക്കെ